ഇപ്പം നമ്മുടെ നാട്ടിൽ ആളുകളൊക്കെ ഒരുമിച്ച് ഒത്തു ചേരുന്നേയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓണം ക്രിസ്മസ് അതുപോലെതന്നെ ഓരോ ആഘോഷങ്ങൾക്കാണ് ഇപ്പം ദീപാവലി അതുപോലെതന്നെ ഓരോരോ ആഘോഷങ്ങൾക്കാണ് എല്ലാവരും ഒത്തുചേരുന്നത് പക്ഷെ അല്ലെങ്കിൽ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ക്ലബ്ബുകൾ നടത്തുന്ന പ്രോഗ്രാം അതുപോലെതന്നെ ഗ്രാമോത്സവം അതുപോലെതന്നെ ഓരോ പരിപാടികൾക്കാണ് ആളുകൾ ഒത്തുചേരുന്നത് അപ്പം കുടുംബക്കാരൊക്കെ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മരണങ്ങളും അതുപോലെതന്നെ എന്തെങ്കിലും ചടങ്ങൊക്കെ ഉള്ളപ്പം കല്യാണം ഹൗസ് വാമിംഗ് അതേപോലെത്തെ ഓരോ പരിപാടികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കുടുംബക്കാരൊക്കെ ഒത്തുചേരുന്നത് പിന്നെ സമൂഹത്തിൽ ആൾക്കാരൊക്കെ ഒത്തുചേരുന്നത് ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ ആണ് ക്ലബ്ബ് വടംവലി അതുപോലെതന്നെ ഒരുപാട് പ്രോഗ്രാംസ് വെയ്ക്കുമ്പോഴാണ് അങ്ങനെയുള്ള ആൾക്കാർ എല്ലായിടത്തു നിന്നും എത്തിച്ചേരുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ വെയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് എന്താ പറയുക റിലാക്സേഷൻ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ട് പിന്നെ സ്ത്രീകൾ എന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഈ കുടുംബശ്രീയിലും അതിലും ഇതിലും ഒക്കെ പോകുമ്പം അവർ ഒരുപാട് ആസ്വദിക്കുന്നൊക്കെ ഉണ്ട് അതു കൊണ്ടു തന്നെ സ്ത്രീകളിൽ ആ ഒരു ഇതുണ്ട് ഉണ്ട് ആണുങ്ങൾ എന്ന് പറയുമ്പോൾ ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഒരിതുള്ളൂ